ഹൈക്കിനിടക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മറ്റേ നമ്മളെ ബ്രഹ്മഗിരി ഹിൽസിലേക്ക് പോവുമ്പോൾ ഞാൻ അവിടെനിന്ന് തെന്നി വീണായിരുന്നു അപ്പോൾ അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മലയിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം നമുക്ക് അടിപൊളി നേച്ചർ ഫോട്ടോസും പിന്നെ ആന അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയുണ്ട് അപ്പോൾ അതിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട് അങ്ങനത്തെ സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട് ഇവിടെയൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് പിന്നെ അല്ലാണ്ടുള്ള പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ പോസ്റ്റ് ഒന്നും ചെയ്യാറില്ല ഇതിലൊക്കെ തന്നെയാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്